മലയാള ഭാഷ ഇപ്പം മറ്റു പ്രദേശങ്ങളിലെ അതായത് മറ്റു പ്ര പ്രദേശത്തെ ഭാഷയിൽനിന്നൊക്കെ അതിൻ്റെ വികാസത്തെയൊക്കെ എങ്ങനെ സാധിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മലയാള ഭാഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് നമ്മുടെ മദർ ടങ്ങാണ് മലയാള ഭാഷ അപ്പം നമ്മളത് കേട്ടാണ് നമ്മളിത്രയും കാലം വളർന്നത് നമ്മൾ ജനിച്ചത് തൊട്ട് നമ്മൾ അതായത് നമ്മുടെ അമ്മയും അച്ഛനുമൊക്കെ പറഞ്ഞ് അതായത് അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം ആശയവിനിമയം നടത്തി നമ്മൾ കേട്ടു പഠിച്ച ഭാഷയാണ് മലയാളം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഭാഷകളുടെ വികാസം ഇപ്പം കൂടുതൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയാണ് പിന്നെ കൂടുതലാൾക്കാരും പറയാൻ ശ്രമിക്കുന്നത് കാരണം മലയാളത്തെ അടിച്ചമർത്തി കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നാലാളും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മലയാളത്തിനേക്കാളും ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെന്നും അവർക്കത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് അറിയാം അങ്ങനെയുള്ള ആ ഒരു ടോക്കൊക്കെ വരും അതിന്റിടയിലൂടെ ആപ്പം മലയാള ഭാഷയെ ഇപ്പോൾ എല്ലാവരും മറന്നോണ്ടിരിക്കുകയാണ് മലയാള ഭാഷയെ ഇപ്പോൾ എല്ലാവരും അടിച്ചമർത്തി കൊണ്ടിരിക്കുന്നൊരു സമയാണ് ഇപ്പം